ഹലോ നിലാ ടാക്സി ഏജൻസിയല്ലേ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു വൈകിട്ടത്തേക്ക് ഒരു അഞ്ചു മണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂന്നാർ ട്രാവലിംഗ് അപ്പം താങ്കൾ എന്ത് കൊണ്ടാണ് വരാൻ താമസിക്കുന്നത് കുറേ നേരമായിട്ട് ഞാൻ താങ്കളെ വിളിക്കുന്നുണ്ട് അപ്പം താങ്കൾ ഫോൺ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞത് അഞ്ചു മണിക്ക് വരണമെന്നാണ് ഇപ്പോൾ ഫൈവ് തേർട്ടി കഴിഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിക്കുന്നത് ഇനിയും ലേറ്റാവാൻ തുടങ്ങിയാൽ ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് മാക്സിമം ഒരു ആറുമണിക്ക് മുന്നേ ആയിട്ടെങ്കിലും നിങ്ങൾ ഒന്ന് വേഗം വരണം ഓക്കെ